ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് ഒന്നെര ഏക്കർ ഭൂമിയിൽ കൂടുതലായും റബ്ബർ ആണ് പിന്നെ വീടിനോടടുത്ത് ചേർന്ന സ്ഥലങ്ങൾത്തെ സ്ഥലത്താണ് ഈ കപ്പയും വാഴയും ഒക്കെ കൃഷി ചെയ്യുന്നത് അത്കൊണ്ട് അതിനുവേണ്ടിയിട്ട് നൂതന ഉപായങ്ങളായിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല പിന്നെ പച്ചക്കറികളൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷിഭവനിൽനിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് അതിന് അതിനനുസരിച്ചുള്ള മരുന്നുകൾ അടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് കപ്പയ്ക്കും വാഴയ്ക്കും ഒക്കെ വേണ്ടി പ്രത്യേക നൂതന ഉപായങ്ങളുടെ ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ചേന ചേമ്പ് അങ്ങനെയുള്ളതൊക്കെയാണ് ബാക്കി കൃഷികൾ ഇങ്ങനെയുള്ള കൃഷികളേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് പിന്നെ കൂടുതലായും എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഒക്കെയാണ് കൂടുതലായും കൃഷി ചെയ്യാറുള്ളത് എനിക്ക് കൂടുതലായിട്ട് കൃഷിയെ പറ്റി അറിയില്ല കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നെ ഉള്ളൂ പച്ചക്കറികളൊക്കെ ചീര അങ്ങനെയുള്ള ഒക്കെ നടുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കും അങ്ങനെയേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ട് ഞാൻ കൃഷികൾ ശ്രദ്ധിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ വീട്ടുകൃഷി ചെയ്യുന്നത് വീടിനോട് ചേർന്നുള്ള കൃഷി മാത്രമേ എനിക്കറിയുള്ളൂ ദൂരെയാണ് റബ്ബർ ഒക്കെ കൃഷി ചെയ്യുന്നത് അവിടെ ഇപ്പോഴ് റബ്ബറ് വെട്ടുക പാൽ എടുക്കുക അതിൽകവിഞ്ഞ് അവിടെ കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷികൾ